ആഹ് ഹലോ ടീച്ചറേ കേൾക്കാമോ എന്നാ വിശേഷം സുഖമായിട്ടിരിക്കുന്നോ പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട് വര്ക്ക് ഒക്കെ എങ്ങനെ പോവുന്നു ആണോ ഇവിടെയാ ആണോ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട് ഒത്തിരി സ്ട്രെങ്ത് ഉണ്ടോ സ്കൂളിൽ ഇവിടെയാണേ ഈ പിള്ളേരെ കൊണ്ട് ഭയങ്കര ശല്യമാ മുഴുവൻ ക്ലാസ്സിൽ പത്തമ്പത് പിള്ളേരും പിള്ളേർ നമ്മൾ പണ്ടത്തെ പിള്ളേരെപ്പോലെ ഒന്നും അല്ല ഇപ്പോൾ നമുക്ക് കണ്ട്രോള് ചെയ്യാനേ പറ്റുന്നില്ല ഭയങ്കര പാടാണ് നമുക്ക് പിള്ളേരുടെ മനസ്സിലാക്കാന് പറ്റുന്നില്ല ഇവരെന്താ വിചാരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം സ്റ്റാഫ് റൂമിലൊക്കെ കയറി പിള്ളേർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു ആറാം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടികളൊക്കെ ചുമ്മാ ടീച്ചേസിന്റെ അടുത്തൊക്കെ എന്തൊക്കെയാ സംസാരിക്കുന്നത് എന്ന് നമുക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് കുട്ടികൾ സംസാരിക്കുന്നത് ആഹ് പിന്നെ ടീച്ചറെ അവിടെ കഴിഞ്ഞ ദിവസം അഭയ് എന്ന് പറഞ്ഞ ഒരു കുട്ടി എന്തോ പ്രശ്നം ഒക്കെ ഉണ്ടാക്കിയില്ലായിരുന്നോ ക്ലാസിലെ അതൊക്കെ ഇപ്പം എങ്ങനെയാ സോള്വ് ആയാ എന്നിട്ട് ആണോ ആ കുട്ടിക്കെന്താ സസ്പെന്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ അധികം ആണോ ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ഇപ്പം അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നേ പിള്ളേർ ചുമ്മാ എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് പോലും നമുക്കറിയാന് പറ്റുന്നില്ല ഇതുങ്ങളെയെക്കെ ഇനി പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പം ഇനി എന്താ ചെയ്യാന് പോവുന്നത് എന്ന് പോലും അറിയില്ല ഇതുങ്ങളെയെക്കെ നമ്മളെന്തിനാണോ പഠിപ്പിച്ച് പത്താം ക്ലാസ് കയറ്റി വിടുന്നത് എന്നാണ് ഞാനിപ്പം ആലോചിക്കുന്നത് ആഹ് പിന്നെ വേറെ എന്താ ടീച്ചറെ വിശേഷങ്ങള് സ്റ്റാഫ് റൂമ് ഒക്കെ എങ്ങനെയുണ്ട് ടീച്ചേര്സ് ഒക്കെ എങ്ങനെയുണ്ട് ആഹ് ആണല്ലേ പിന് ആഹ് പിന്നെ അവിടെ പുതിയ പ്രിന്സിപ്പള് വന്നെന്ന് കേട്ടല്ലോ പുള്ളിക്കാരി എങ്ങനെയുണ്ട് കമ്പനിയാണോ അതേയല്ലേ ഇവിടുത്തെ പ്രിന്സിപ്പളും ഭയങ്കര സ്ട്രിക്റ്റാ പുള്ളിക്കാരി അടുത്ത ആഴ്ച ഇതുപോലെത്തന്നെ മാറും എന്നാണ് പറയുന്നത് കേട്ടത് പക്ഷെ ഇനി അടുത്തത് വരാന് പോവുന്ന ആളെങ്ങനെയാവും എന്ന് അറിയില്ല ഇത് ഒട്ടും സ്ട്രിക്റ്റ് അല്ലാത്ത ആള്ക്കാർ വന്നാലും നമുക്ക് പ്രശ്നമല്ലേ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സീനിയര് ടീച്ചറിന്റെ തലയിലിരിക്കും പുള്ളിക്കാരിയാണെങ്കിലും ഒട്ടും ചെയ്യത്തും ഇല്ല അതുകൊണ്ടിപ്പം ആകെ പെട്ട് നിൽക്കുവാ ഇവിടുത്തെ ടീച്ചര്മ്മാരൊക്കെ പലരും പല രീതിയിലാ പറയുന്നത് ഇവരൊന്നും പറയുന്ന പോലെ അല്ല ഇവർ ചെയ്യുന്നത് ഇവര്ക്ക് പോലും അറിയില്ല ഇവരെന്തൊക്കെയാ പറയുന്നത് ആഹ് പിന്നെ ടീച്ചറെ അവിടെ ഏതെങ്കിലും ടീച്ചറിന്റെ പോസ്റ്റിലേക്ക് വല്ല വേക്കന്സി വല്ലതും ഉണ്ടോ എന്റെയൊരു ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചായിരുന്നെ ആഹ് അവളിപ്പം ജോലി നോക്കിക്കൊ ആഹ് ഒന്ന് അന്വേഷിക്കണേ അവള്ക്കിപ്പം ലാംഗ്വേജ് ഏതാണെങ്കിലും കുഴപ്പം ഇല്ല എന്നാണ് പറഞ്ഞത് മലയാളവും ഇംഗ്ലീഷും ഹിന്ദിക്കും ഡിഗ്രി ഉള്ള ആളാണേ അപ്പം അവള്ക്കേത് വേണമെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് പറയണേ ആഹ് ഓക്കെ ആഹ് ആഹ് അവൾ എല് പി യൂ പിയാണ് മെയിന് ആയിട്ടും നോക്കുന്നത് ഹൈസ്കൂളിലേക്കല്ല അതുകൊണ്ട് ഹലോ ടീച്ചറെ ആഹ് പിന്നെന്താ വിശേഷങ്ങൾ ആഹ് അപ്പോൾ ടീച്ചറെ ആ അപ്പം ആ വേക്കന്സീടെ കാര്യം മറക്കേണ്ട അതൊന്ന് പറഞ്ഞേക്കണേ ആഹ് ആഹ് പിന്നെ ആ പ്രിന്സിപ്പള്നോടും ഒന്ന് ചോയിച്ചേര് എന്തെങ്കിലും പുതിയ വിവരങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് പറയണേ പിന്നെ അവിടെ തൊട്ടടുത്തുള്ള വേറെ ഏതെങ്കിലും സ്കൂളിലാണെങ്കിലും അന്വേഷിക്കാന് പറ്റുവാണെങ്കിൽ ഒന്ന് അന്വേഷിക്കണേ ആഹ് ഓക്കെ എന്നാൽ ശരി